ഇപ്പോൾ കൂടുതല് ദിവസങ്ങളൊക്കെ ഞങ്ങള് ഞാനിപ്പം വീട്ടിനു പുറത്ത് പോയി ഒക്കെ നിൽക്കുവാണെങ്കില് കൂടുതലായിട്ടും എൻ്റെ വൈഫാണ് കൂടുതലായിട്ടും ചെടിയും കാര്യങ്ങളൊക്കെ നോക്കുന്നത് അപ്പം നമ്മ ഞാനിപ്പോൾ പോന്നതിൻ്റെ അന്ന് ഇപ്പോൾ രാത്രി ആണെങ്കിൽ നൈറ്റ് വൈകുന്നേരം ഒന്ന് ചെടിയൊക്കെ നനയ്ക്കും അപ്പോൾ വളവും കാര്യങ്ങളൊക്കെ ഇട്ടു കൊടുക്കും എന്നിട്ട് നമ്മള് വളവും കാര്യങ്ങളൊക്കെ അവിടെ എടുത്തും വയ്ക്കും അപ്പം അതിനിപ്പം വളം ഇടണ്ട ടൈമിലാണെങ്കില് ഭാര്യനെ വിളിച്ച് പറയും ഇന്ന് വളമിടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളു വളം ഇട്ടോളും പിന്നെന്നു പറഞ്ഞ കഴിഞ്ഞാല് അതിനു വെള്ളം നനയ്ക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാല് മോണിംഗ് മോണിംഗും നൈറ്റും ആണ് കൂടുതലായിട്ടും വെള്ളവും കാര്യങ്ങളൊക്കെ നനയ്ക്കുക അപ്പം വെള്ളം പിന്നെ നമുക്ക് നമ്മുടെ ടാങ്കിൽ നിന്ന് നേരിട്ട് പൈപ്പിലൂടെ പിടിച്ചു കൊടുത്താൽ മാത്രം മതി അപ്പോൾ അങ്ങനെയൊക്കെയാണ് കൂടുതലായിട്ടും പരിപാലിക്കാന്നു പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഇപ്പോൾ നമ്മള് രണ്ടുപേരും പോകുന്ന സമയങ്ങളിലാണെങ്കിൽ ആരെങ്കിലും അടുത്തുള്ള വീട്ടില് ഇപ്പോൾ എൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിലെ ആൾക്കാരുണ്ടാവും അപ്പോൾ അവരോട് ജസ്റ്റ് ഒന്ന് ഒന്ന് നനയ്ക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് നനച്ചൊക്കെ തരാറുണ്ട് അപ്പോൾ അങ്ങനേയും ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കൂടുതലായിട്ടും ഞാന് ചെടികളെ നോക്കുന്നത് വേണമെങ്കിൽ പറയാം